ഞാൻ ബൈക്കിൽ സന്ദർശിച്ച സ്ഥലം എന്ന് വെച്ചാൽ എറണാകുളത്ത് വാമലക്കണ്ടം എന്ന് പറയുന്നൊരു അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ബൈക്കിൽ ഞാൻ ഫ്രണ്ട് ആയിട്ട് ഫ്രണ്ട് ആയിട്ടുള്ള അജിത്തെന്ന് പറയുന്നൊരു ഫ്രണ്ടായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അത് ഒരു പ്രകൃതി പ്രകൃതി രമണീയമായൊരു സ്ഥലമായിരുന്നു ഒരു സ്കൂളിൻ്റെ അടുത്തു തന്നെ ഒരു വെള്ളച്ചാട്ടവും നല്ലൊരു വ്യൂ ആയിരുന്നു കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം അവിടെച്ചെന്ന് എടുക്കാൻ സാധിച്ചു പിന്നെ നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു ഒരു നേച്ചർ വൈബ് ഉണ്ടായിരുന്നു അവിടെ തന്നെ പിന്നെ കുറെ ആളുകൾ അവർ അവിടെ അവിടെ അതെല്ലാം കാണാനായിട്ട് ഓരോ ദിവസോം എത്തുകയും ഉണ്ടായിരുന്നു നല്ല തിരക്ക് തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ അവിടെ ആ വഴിയിലുള്ള ബൈക്കിലോട്ടുള്ള ബൈക്കിലൂടെയുള്ള യാത്ര ഒരു പീസ്ഫുള്ളായിരുന്നു നമുക്കൊരു ശാന്തിയും ഇതെല്ലാം സമാധാനവുമെല്ലാം കിട്ടും ഇതുപോലെ എനിക്ക് വീണ്ടും ബൈക്കിൽ ഒരു സോളോ റൈഡ് പോവാൻ ആഗ്രഹമുള്ള സ്ഥലമാന്ന് കശ്മീർ അവിടെ ഒറ്റക്ക് പോവാനായിട്ട് സോളോ റൈ സോളോ റൈഡ് തന്നെ പോവണം എന്ന് ആഗ്രഹമുണ്ട് അത് സോഷ്യൽ മീഡിയ വഴി ഇൻഫ്ലുൻസായിട്ടാണ് മെയിനായിട്ട് അങ്ങനെ പോവാൻ തന്നെയൊരു തോട്ട് തന്നെ മനസ്സിൽ വന്നത് അതാണെനിക്ക് ഒരു ആഗ്രഹം